ആ അതെ ആ ഇവിടെ നല്ല ഓഫർ ഉണ്ട് ഒരൂ അഞ്ചായിരത്തിനാണ് ഒരു നല്ല സാരി കിട്ടുന്നത് നല്ല കോസ്റ്റ് സാരിയെങ്കിൽ ഇരുപത് അങ്ങനെയെല്ലാം പോവും പട്ടുസാരിക്കെല്ലാം ആയെങ്കിൽ ആ അതെ ഓഫർ ഉണ്ട് ആ കുറച്ച് പ ഇരുപതായ സാരിക്കൊരു രണ്ടായിരം അങ്ങനെ കുറയും നല്ലൊരു കോസ്റ്റ്ലി സാരിയാണ്

അതിൽ തന്നെ അതിൽ തന്നെയുണ്ടാവും പിന്നെ സ്റ്റിച്ച് ആക്കാനായിട്ട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈട ആക്കാം ഇല്ല ഇല്ലില്ല കുറവേ ഉള്ളൂ ഓഫറിലാണ് പോവുന്നുള്ളത് അപ്പോൾ കുറവാവും ഇവിടുന്ന് ഷിഫ്റ്റ് ആക്കിൻ കുറച്ച് കുറഞ്ഞിട്ടേ കിട്ടൂ സാരിക്കും കുറയ്ക്കും ഇല്ല കഴിഞ്ഞിട്ട് ഇപ്പം നടക്കുന്നുണ്ട് കുറേ ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട് ഇല്ലില്ല നല്ല മെറ്റീരിയൽ ആണ് ആ നല്ല കോസ്റ്റ്യൂം കുട്ടികൾക്ക് ഡ്രസ്സിനൊക്കെ മൂന്നെണ്ണത്തിന് ഒന്ന് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ത്രീ ഇൻ വൺ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ആ കോ എല്ലാത്തിനും കോമ്പർ കോംമ്പോ ഓഫർ ആണ് ഇപ്പോൾ വാലന്റൈൻസ് ഡേ അല്ലേ ഡേ ആയിക്കൊണ്ട് പോന്നതല്ലേ അതിനോട് കുറച്ച് ഓഫാറിലാണ് പോവുന്നത് അപ്പോൾ എല്ലാം കുറച്ച് പർച്ചേസിങ്ങ് ജാസ്തിയുണ്ട് പിന്നെ ഇപ്പോൾ എല്ലായിടത്തും ഫംഗ്ഷൻ ഒക്കെ അല്ലേ ആ ശരി